ആദ്യക്കാലത്ത് മനുഷ്യർ വസ്ത്രം ധരിച്ചിരുന്നത് ഒരു മു ഒരു തുണി മാത്രം ഉപയോഗിക്കുള്ളായിരുന്നു പിന്നീടാണ് ഷർട്ടൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് ആദ്യകാലത്ത് കത്തോലിക്കയൊക്കെ മുണ്ടും ചട്ടയും ആണുപയോഗിച്ചിരുന്നത് പുതയ്ക്കാൻ കൗണിയാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് അത് കഴിഞ്ഞാണ് പിന്നീട് സാരിയിലേക്ക് കടന്നു ഇപ്പം സാരിയെല്ലാം അതു കഴിഞ്ഞാൽ പിന്നെയുള്ളത്തെ സാരിയെല്ലാം ഉപയോഗിച്ചാൽ ഇപ്പോഴത്തെ തലമുറയിൽ പുതിയതായി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ചുരിദാറെന്ന വസ്ത്രത്തിലേക്ക് കടന്നു അപ്പം സ്വർണ്ണാഭരണങ്ങളാണ് കൂടുതൽ ഗ്രാമത്തിലുള്ളവർക്കും നഗരത്തിലുള്ളവരും തമ്മിൽ ആഭരണത്തിൽ വ്യത്യാസമുണ്ട് അവർ കുറച്ച് വസ്ത്രങ്ങൾ ഇപ്പാഭരണങ്ങൾ മാത്രമേ ധരിക്കുന്നുള്ളൂ പിന്നെ മുസ്ലിം സ്ത്രീകളാണേ പറുദയൊക്കെ ധരിക്കുന്നു അവർ സെ തലേ ഒക്കെ ചിലരുടെ വസ്ത്രം മുഴുവൻ ചുരിദാർ കയ്യ് കണ്ണ് മാത്രമേ കാണത്തുള്ളു ഭക്ഷണം കഴിക്കാൻ മാത്രമേ അത് എന്താ ഒരു ഒരു സാധനം പൊക്കി വെക്കും അത് കഴിഞ്ഞേച്ച് ഭക്ഷണം കഴിച്ച ശേഷം അത് താ താഴ്ത്തിയിടും അത് കഴിഞ്ഞ് കണ്ണ് മാത്രമേ അവർക്ക് കാണത്തുള്ളൂ അതുപോലെ തന്നെ അവർ ആഭരണമൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും പക്ഷെ പ ഈ പറുദാ ധരിക്കുന്നതു കൊണ്ട് തിരിച്ചറിയാൻ പാടില്ല പിന്നെ വയറുള്ള ആദിവാസികളാണെങ്കിൽ അവർ തുണിയൊക്കെ ഉടുക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് അവർ കായ്കനികളും അതും ഇതുമൊക്കെ ഭക്ഷിക്കുകയും പിന്നെ ഈ സ്വർണ്ണാഭരണമല്ലാത്ത ആഭരണങ്ങളാണവർ ഇത് കൂടുതലായിട്ടുപയോഗിക്കുന്നത് പിന്നെ ഇന്നത്തെ തലമുറയിപ്പം സ്വർണ്ണത്തിനൊക്കെ വില കൂടിയതു കൊണ്ട് ഇപ്പം കുറച്ചു മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നായെന്നു വെച്ചു കഴിഞ്ഞാൽ ഭയങ്കര വെളിയിലേക്ക് കടന്നു കൊണ്ട് മനുഷ്യർക്കത് വാങ്ങിക്കാനും ഉപയോഗിക്കാനത് പറ്റാത്ത ഒരു അവസരത്തിലേക്കെത്തിച്ചേർന്നിരിക്കുകയാണ് ജീവിത രീതി ആകെ മാറി മറിഞ്ഞ് കലങ്ങി മറിഞ്ഞു കൊണ്ടിരിക്കുകയാണ് ജീവിതം എങ്ങനെ ഈ വസ്ത്രത്തിന് സ്കൂ കൂടുതലായിട്ട് ആഡംബരത്തോടു കൂടി ജീവിക്കാൻ കുറേ പേര് കഴിയുമ്പോൾ കുറച്ചൊരാഭം ആഡംബരമില്ലാത്ത ജീവിത്തേത് ദാരിദ്രവും പട്ടിണിയും ഇങ്ങനെ കൊണ്ട് കഴിക്കുന്നവർക്കവളുടെ വസ്ത്ര ധാരണത്തിനും മാറ്റങ്ങൾ വന്നു വന്നു കൊണ്ടിരിക്കുകയാണ് എല്ലാം സമൂഹം ആകെ മാറി മറിഞ്ഞു വസ്ത്ര ധാരണത്തിലും ജീവിത രീതിയിലും നടപ്പിലും എടുപ്പിലും എല്ലാം വ്യത്യസ്തമായ ജീവിത രീതിയാണ് അന്വർത്തിക്കുന്നത്